ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൂടും തണുപ്പും ഒക്കെ മാറി മാറി വരുന്നൊരു കാലാവസ്ഥയാണ് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും വിവിധ രാജ്യങ്ങളിലുള്ള കാലാവസ്ഥകൾക്ക് തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇപ്പോള് കേരളത്തിലെ കാലാവസ്ഥ തന്നെയാണെങ്കിൽ ചൂടും തണുപ്പും മഴയും എല്ലാമുണ്ട് ഇപ്പോള് ഇന്ത്യയിലാണെങ്കിലും ഒത്തിരി കാലാവസ്ഥകൾക്ക് ഇപ്പോള് ഒത്തിരി വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ച് കൊണ്ടിരിക്കുന്ന സമയമാണ് ചൂട് ഭയങ്കരമായിട്ട് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആണ് ഇന്ത്യയിലെ ഭയങ്കരം കാലാവസ്ഥ ത്തിലൊത്തിരി വ്യതിയാനങ്ങള് മാറ്റങ്ങളൊക്കെ സംഭവിച്ച് കൊണ്ടിരിക്കുന്നു